ഹലോ ആ ഇത് പീറ്റീസ് മൊബൈൽ അല്ലേ നിങ്ങളുടെ ഷോപ്പ് ഇത് എവിടെയാണ് അതെയല്ലേ ഇപ്പോഴത്തെ പഴയ ഇപ്പോഴത്തെ അണ്ട്രോയിഡ് ഫൈ ജീ ഫോണ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടോ ആണല്ലേ ആ ഓക്കെ എന്നാൽ പിന്നെ അത് അതിൻ്റെ ഓഫറ് ഒക്കെ എങ്ങനെയാണ് അതെ നെറ്റ്വര്ക്ക് ഒക്കെ എങ്ങനെ വരും ഓക്കെ യോക്കെ കമ്പനി ഒക്കെ നല്ല കമ്പിനി ഐറ്റെംസ് ഉള്ളത് ഏതൊക്കെയാണ് അതിനകത്ത് ഉള്ള സെറ്റ് ഓക്കെ ആ ഓക്കെ യോക്കെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് മൊബൈല് ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുണ്ടോ ഓക്കെ ഇത് പിന്നെ ഇതിന്റെ റീചാര്ജിങ്ങ ഒക്കെ എങ്ങനെയാണ് മന്ത്ലീ അങ്ങനെ ഓഫറ് ഓക്കെ ടോക്ടയിം ഒക്കെ ഓക്കെ ഫുള്ടൈം ടോക്ടൈം ഒക്കെ ഫുള്ടൈം ആണോ ആ ഓക്കെ യോക്കെ അപ്പം നിങ്ങൾക്ക് ഇ എം ഐ ടെ എങ്ങനെയാണ് വരുന്നത് ഇ എം ഐ ഉണ്ട് ആ ഹാ ഹ ആ ഓക്കെ ഓക്കെ ക്കെ പിന്നെ ഈ നോക്കിയാടെ എങ്ങനെയാണ് നോക്കിയ ഹാന്ഡ്സെറ്റ് എങ്ങനെയാണ് ആ നോക്കിയാടെ ഇത് നമ്മുടെ അണ്ട്രോയിഡ് സെറ്റ് അത് നല്ല അത് നല്ല പിന്നെ സെയില് ഉള്ള സെറ്റ് ആണോ അതെയല്ലേ ഹഹഹാ അതിന്റെ ബാട്രി ലൈഫ് ഒക്കെ അതിന്റെ രണ്ടുവര്ഷത്തെ വാറന്റി മ് മ് ആ ഓക്കെ കടയ്ക്കൽ നിങ്ങളുടെ ഷോപ്പ് കടയ്ക്കൽ കറക്റ്റ് എവിടെയാണ് ആ ഹഹാ ഓക്കെ യോക്കെ ഞാന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ആ